സമൂഹ മാധ്യമത്തിലൊക്കെ ഫോട്ടോകളൊക്കേ പോസ്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് അതായത് നമ്മൾ ഒരുപാട് ഫോട്ടോയോക്കെ നമുക്കെന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് കുറച്ച് ഫോട്ടോസ് മാത്രമേ നമുക്കങ്ങനെ സമൂഹ മാധ്യമത്തിലൊക്കെ അതായത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ തരമുള്ള ചിത്രങ്ങൾ അതുപോലെത്തന്നെ പറയുകയാണെങ്കിൽ മുറ്റത്തെ ചെടികൾ അതായത് പ്രകൃതി രമണീയമായ ചിത്രങ്ങൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അതായത് നമുക്ക് ആൾക്കാർക്കൊക്കേ പെട്ടെന്ന് മനസ്സിൽ കാണുമ്പം അതായത് അത് കണ്ട് വായിക്കാൻ തോന്നുന്ന പലതരം ചിത്രങ്ങളും ഉണ്ടല്ലോ അതൊക്കെ നമ്മളൊരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാ അതായത് ക്യാമറയിൽ പകർത്തി അതായത് നമ്മൾ ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആദ്യം നമുക്കിഷ്ടപ്പെടണം അത് കഴിഞ്ഞിട്ട് അതവിടെ നമുക്ക് റീച്ചാകുമോയെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുത്തിട്ട് കാര്യമുള്ളൂ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ക്ലിയർ ക്ലാരിറ്റി ഒക്കെ കറക്റ്റായിരിക്കണം അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളും അതായത് മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ നടക്കും